ഹലോ ആ നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തിയെന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ അടുത്തെത്തിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് മെസ്സേജ് കണ്ടു പക്ഷേ നിങ്ങളെ കാണുന്നില്ല ആ ഇപ്പോൾ ഇവിടെ അടുത്തെത്തിയെന്ന് പറഞ്ഞു ഞാൻ നിൽക്കുന്ന ലൊക്കേഷന് അടുത്ത് എത്തീന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് കണ്ടിരുന്നു നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പക്ഷേ നിങ്ങളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഞാനിവിടെ ദാ ഒരു പലചരക്ക് കടേൻ്റെ ഫ്രണ്ടിൽ ഉണ്ട് ഒരു എക്സിനു ഫ്രെണ്ടിൽ ആ ഞാൻ അവിടെത്തന്നെയുണ്ട് നിങ്ങൾ ഏത് സൈഡിൾക്കൂടിയാണ് വരുന്നത് ഓപ്പോസിറ്റ് സൈഡിൽക്കൂടി ആയിരിക്കും അല്ലേ ആ അതാണ് എനിക്ക് കാണാൻ കഴിയാത്തത് നിങ്ങൾ നേരെ യൂ ടേൺ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽക്കൂടി വാ ഞാനിതാ ഈ പലചരക്ക് കടേൻ്റെ ഫ്രണ്ടിൽ ഉണ്ട് ഒരു വൈറ്റ് ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് ഓക്കേ ഓക്കേ ആ ആ ഒരു വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ട് ഈ കടേൻ്റെ ഫ്രണ്ടിൽ ഞാനിപ്പോൾ നിൽക്കുന്നുണ്ട് ഒരു ബാഗൊക്കെ പിടിച്ചിട്ട് വേറെ ആരും ഇല്ല വേറെ ആരുമില്ല ഞാൻ മാത്രമാണ് നിൽക്കുന്നത് വേറെ ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് ഓക്കേ ഓക്കേ പക്ഷേ നിങ്ങൾ സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ എത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വിളിച്ചു നോക്കിയത് നിങ്ങൾക്ക് വേറൊന്നും തോന്നരുത് നിങ്ങൾ ഇതേ യു ടേൺ എടുത്തിട്ട് വേഗം വന്നോളൂ ഓക്കേ അർജൻ്റായിട്ട് പോകാനുള്ളതാണേ ഓക്കേ ഓക്കേ